ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ഫ്രൈഡ്റൈസും ചിക്കൻ കറിയുമാണ് അതിനായി അത് എൻ്റെ എൻറ്റേതായ ചേരുവകളെല്ലാം ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ആവശ്യമായിട്ട് ഞാൻ കൈമ അരിയാണ് ഉപയോഗിക്കുന്നത് കൈമ അരി ഒരു കിലോ ആദ്യമായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം വാരാനായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളം വാരാനായിട്ട് ഒരു അരിപ്പ പോലെയുള്ള പാത്രത്തിലേക്ക് വയ്ക്കുക അതിനുശേഷം നമ്മൾ ഒരു പരന്ന കുക്കറിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ പാത്രത്തിൽ ഈ വെള്ളം തിളക്കാനായിട്ട് വയ്ക്കുക വെള്ളം ഏകദേശം തിളച്ച് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉപ്പ് ആവശ്യമായ ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്ത ശേഷം അത് നന്നായിട്ട് ഇളക്കുക നന്നായി വെട്ടി തിളച്ചതിനു ശേഷം നമ്മൾ കഴുകി വച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇടുക ഇടക്ക് അത് ഇളക്കി നോക്കുകയും വേണം കൈമ അരി ആയതുകൊണ്ട് അതിന് അധികം വേവില്ല അത് ശ്രദ്ധിച്ചുവേണം നമ്മൾ ചെയ്യാനായിട്ട് ഒന്ന് തിളച്ച് അത് പാകമാകുമ്പോൾ നമ്മൾ അത് അടച്ച് വയ്ക്കുക അടച്ച് വയ്ക്കുന്നതിന് മുമ്പായിട്ട് അതിലേക്ക് ഏലക്ക കുരുമുളക് കച്ചോലം പിന്നെ കറുവപ്പട്ട എന്നിവ ചതച്ച് അതിലേക്ക് ചേർക്കുക ചേർത്ത് വച്ചതിന് ശേഷം അത് നന്നായി അടപ്പ് കൊണ്ട് അടയ്ക്കുക അത് ആ ആവിയിൽ ഇരുന്ന് നന്നായി വേവാനായിട്ട് അനുവദിക്കുക അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അടപ്പ് മൂടി അടപ്പ് മാറ്റി വെച്ച് അതിൻ്റെ വേവ് നോക്കുക അപ്പഴത്തേക്കും അത് വെന്തിരിക്കും കൈമ അരിക്ക് അധികം വേവ് ഇല്ലാത്തതുകൊണ്ട് വെന്തിരിക്കും ഉടൻ തന്നെ അത് നമ്മൾ വേറെയൊരു അരിപ്പ പോലുള്ള പാത്രത്തിലേക്ക് മാറ്റുകയോ അല്ലാ എങ്കിൽ നമ്മൾ വെള്ളം കളയാനായിട്ട് അടച്ചിടുകയോ ചെയ്യണം അത് ആ സമയം കൊണ്ട് നമ്മൾ ഇനി അതിൽത്തെ ബിരിയാണിക്കായിട്ടുള്ള ചിക്കൻ കറിക്കായിട്ടുള്ള വിഭവം ചേരുവകളെല്ലാം നമുക്ക് അരിഞ്ഞ് വെക്കാം ആദ്യം ഒരു അര കിലോ സവാള എന്നുവെച്ചാൽ ഒരു ഇടത്തരം മൂന്ന് നാല് സവാള അതിൻ്റെ തൊലി എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി വയ്ക്കുക എന്നിട്ട് അത് സ്ലൈസ് ചെയ്യുക അതിന് ശേഷം ഒരു നൂറ് ഗ്രാം വെളുത്തുള്ളിയും അതേപോലെ അമ്പത് ഗ്രാം ഇഞ്ചിയും ഒരു അഞ്ച് എട്ട് നീളമുള്ള പച്ചമുളകും അത് പിന്ന അരിഞ്ഞ് വെക്കുക ഇതിനുശേഷം നമ്മൾ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുക്കുക കടുക് ഇട്ടതിന് ശേഷം കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി നന്നായിട്ട് വഴറ്റുക അതിൻ്റെ ഒരു ആ വാടി വാടി കഴിഞ്ഞ് വരുന്ന സമയത്ത് കറിവേപ്പില ചേർക്കുക കറിവേപ്പില ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ സവാള ഇടുക സവാള ഇട്ട് ഒരൽപ്പം ഉപ്പും കൂടെ ഇടുക അപ്പോൾ അത് പെട്ടെന്ന് വഴന്ന് കിട്ടും അതിന്ശേഷം നന്നായി വഴന്നതിന് ശേഷം നമ്മൾ ഏതെങ്കിലും മസാല ഞാനിത് ഉപയോഗിക്കുന്നത് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന മസാലകൾ തന്നെയാണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപൊടി കസ്തൂരി അത് കാശ്മീരി മുളക്പൊടി രണ്ട് ടീസ്പൂൺ ഇട്ട് നന്നായിട്ട് വഴറ്റുക അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി അതിൻ്റെ ആ പച്ച മണം എല്ലാം മാറി കഴിയുമ്പോൾ നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി ഞാൻ ഒരു ഒരു ചിക്കൻ ആണ് ഞാൻ വാങ്ങിച്ചത് ആ ചിക്കൻ കഴുകി ഞാൻ നേരത്തെ തന്നെ ഉപ്പും വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് അത് കഴുകി അല്ലാ എങ്കിൽ അതിൻ്റെ ആ ഒരു മണം മാറുകില്ലായിരുന്നു അങ്ങനെ നമ്മളത് കഴുകി വച്ച ആ കഴുകി വെള്ളം വാരാൻ വച്ചിരുന്ന ആ ചിക്കൻ പീസുകളെല്ലാം കൂടി നമ്മൾ ചീനച്ചട്ടിയിലേക്ക് ഇടുക ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അത് അടച്ച് വയ്ക്കുക അടച്ച് വെക്കുമ്പോൾ ഇതിലെ ആവികൊണ്ട് അതിലെ ഈ ചിക്കനിലെ വെള്ളമെല്ലാം പിന്നെ കറിയിലേക്ക് ആ പാനിലേക്ക് വന്നിട്ടുണ്ടാവും ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ അത് നന്നായിട്ട് വേകും നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് അത് അങ്ങോട്ട് മറിച്ചിടുകയും തിരിച്ചിടുകയും ഇളക്കുകയൊക്കെ ചെയ്യണം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ അടച്ച് വേവിക്കണം അടച്ച് വേവിക്കുമ്പോൾ ആ വെള്ളത്തിൽ ഇരുന്ന് തന്നെ ഇത് നന്നായി വെന്തിട്ടുണ്ടാവും വെന്ത് കുറുകി വന്നിട്ടുണ്ടാവും അതിന് ശേഷം നമ്മൾ അല്പം